ഹലോ ആ നിങ്ങൾ ട്രാവല് ഏജൻസീസല്ലേ ആ അപ്പം നമ്മൾ ആക്ച്വലി നെക്സ്റ്റ് മന്ത് വയനാട്ടിലേക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു ഫോർ ഫൈവ് മെമ്പേഴ്സ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് അപ്പം നമുക്ക് വയനാട് നമുക്ക് കുറച്ചുംകൂടി നേച്ചറായിട്ട് ഇതാക്കിയ ഫീൽഡാണിഷ്ടം ഉം ഉം

ഞങ്ങൾ കാലിക്കറ്റ്നിന്ന് കാലിക്കറ്റ് വരെ എയർപോർട്ടിലാ വരുന്നത് കാലിക്കറ്റീന്ന് നമ്മൾ നിങ്ങളുടെ എക്സാക്ട് സ്ഥലം എവിടെയാണ് ലൈക് റിസോർട്ട് നം ഞങ്ങൾ മാൻതോട് മാൻതോട് റിസോർട്ടിലാണ് ഓക്കേ എന്നാൽ ഞങ്ങൾ കൽപ്പറ്റ റിസോർട്ട് ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഓക്കേ നിങ്ങളുടെ ഇത് ഞങ്ങൾ ഞങ്ങളൊരു വൺ വീക്ക് ഇതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പാക്കേജും കാര്യങ്ങളൊക്കെ ഓക്കേ ഓക്കേ നിങ്ങളെല്ലാം കൂടെ ഇതാക്കുമ്പോൾ ആ ഓക്കേ ഓക്കേ ഫുഡും ട്രാവൽ എക്സ്പെൻസും അപ്പം നമുക്ക് ആ നമ്മൾ ഈ വൺ വീക്ക് കൊണ്ട് അതായത് ആൾമോസ്റ്റ് ഒന്ന് വയനാട് കവറ് ചെയ്യുന്ന രീതിക്കാണ് നമ്മളുദ്ദേശിക്കുന്നത് ഉം ഉം ഉം ഇതിപ്പോൾ നമുക്ക് എല്ലാം ഓരോ ദിവസം കയ്യിലുണ്ടാവും അല്ലേ നമ്മൾ ഓക്കേ ഓക്കേ ഓക്കേ ഓക്കേ ഓക്കേ അപ്പോൾ ഇത് ഹോൾ ബഡ്ജറ്റ് എത്ര വരും ഇത് പെർ പേഴ്സണല്ലേ സെവെൻ തൗസൻഡ് ഓക്കേ ഓക്കേ ഓക്കേ ഞങ്ങൾ ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം ഇതിൻ്റകത്ത് ഈ നമ്പറിൽ ഞങ്ങൾ വരുന്നതിൻറ്റെയൊരു ടു ഓർ ത്രീ ഡേയ്സ് മുമ്പേ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്യാം ഓക്കേ ഓക്കേ ഓക്കേ താങ്ക് യൂ ഓക്കേ ബൈ